ഹലോ ആ അതെ അതെ അതെ അത് സിംഗിൾ ആകുമ്പോൾ മൂന്നായിരം വരും ഒരു ഒരു പീസിന് ബനാറസിന് അതിൽ ഡിസ്കൗണ്ടായിട്ട് നമ്മൾ കുറക്കും നിങ്ങൾക്ക് എത്ര വേണ്ടത് നിങ്ങൾക്ക്

പിന്നെ ഡിസ്കൗണ്ട് ഉണ്ട് ഡിസ്കൗണ്ട് ആക്കാം പിന്നെ കൂടുതൽ ആൾക്കാർക്ക് കൊണ്ടു പോകുന്നുണ്ട് ഇഷ്ടംപോലെ ഉണ്ട് ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഒരിക്കൽ വന്നിട്ട് പർച്ചേസ് ചെയ്തെങ്കിൽ പിന്നെ പിന്നെ നിങ്ങൾക്ക് ഇല്ല ഇല്ല ഇല്ല ഇല്ല ഇല്ല പോവില്ല കളറൊന്നും പോവില്ല അത് ഇപ്പോൾ ഇതായിട്ട് ഗ്യാരൻറ്റി

ആ ഒരു അത് ഇപ്പം മൂവായിരത്തിലുള്ള നമ്മൾ അഞ്ഞൂറ് കൊറക്കാൻ പറയുന്നത് ഒരു ഫീസിന് അല്ലെ അഞ്ഞൂറു കുറക്കുന്നത് അപ്പോൾ അഞ്ചാറ് പീസെടുക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു ഡിസ്കൗണ്ട് വരുമല്ലോ അത് പിന്നെ നിങ്ങൾ ആളുണ്ടെങ്കിൽ പറഞ്ഞോളൂ ആരെങ്കിലും അടുത്ത നിങ്ങളുടെ ആരെങ്കിലും ആൾക്കാരുണ്ടെങ്കിൽ പറഞ്ഞോളൂ അല്ലേൽ നമ്മൾ കടയിൽ നിന്നു നിരവധി ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ട് ഇഷ്ടംപോലെ അത് ഒരേ ഒരേ റേറ്റും ഒന്നന്നെ പക്ഷെ ഡിസ്കൗണ്ട് എല്ലാത്തിലും ഉണ്ട് എല്ലാത്തിനായിട്ടും ഉണ്ട് എടുക്കുമ്പോൾ കുറച്ചു കൂടുതൽ ഡിസ്കൗണ്ട് ഉണ്ടാകും ശരി